ഗ്രാമ പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് വെറുതെ അല്ല കാരണം അവിടെ ഉണ്ടാവുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വീക്ക് ആയിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ പല സമയത്തും നമുക്ക് വേണ്ട സമയത്ത് അവിടെ വാഹനങ്ങള് കിട്ടില്ല അതു കൂടാതെതന്നെ നല്ല നല്ല റോഡുകൾ ഉണ്ടാവില്ല മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ ആ റോഡുകളുടെ അവസ്ഥ ഉള്ളതിലും പരിതാപമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പുറത്തേയ്ക്കുള്ള യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് നമ്മളൊരു ഗ്രാമം എടുക്കുക അവിടെ ഒരു നല്ല മഴക്കാലത്ത് ആണെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും പെട്ടെന്ന് നമുക്കവരെ കൊണ്ടുപോകാൻ പറ്റിയെന്നു വരില്ല കാരണം വെള്ളം കയറി കാരണം നല്ല റോഡുകൾ ആയിരിക്കില്ല അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്നു വാഹനം ലഭിച്ചു എന്ന് വരില്ല ഇതൊക്കെ എപ്പോഴും ഗ്രാമ പ്രദേശക്കാർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് അതായത് ട്രാൻസ്പോർട്ടേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു വീക്ക് സൈഡ് ആയിട്ടാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ടുതന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ആണ് ഗ്രാമ പ്രദേശങ്ങളില് വാഹന സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതും നല്ല നല്ല റോഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതും അതുകൊണ്ടു തന്നെ ഇപ്പോൾ നമുക്ക് ഗ്രാമീണ സമൂഹത്തിൽനിന്ന് പുറത്തേയ്ക്കു യാത്ര ചെയ്യാൻ എന്നു പറയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്